ബാങ്കിൽ ആയിട്ട് ഞങ്ങളയൽക്കൂട്ടം തുടങ്ങിയതിൽ പിന്നെയാണ് ബാങ്കിൽ പോയി ഞങ്ങള് പൈസ അക്കൗണ്ട് ചേർന്നതും പിന്നേ ബാങ്കിൽ പോകാനും പൈസ അടയ്ക്കാനും പൈസ എടുക്കാനും ഒക്കെ ഞങ്ങൾ പഠിച്ചത് അതിൻ്റെ പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ച് അവരൊര് വീടിലെ അടുക്കളയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ അവര് പുറത്ത് ഇറങ്ങുന്നില്ലല്ലോ അവർക്കങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ബാങ്ക് സംബന്ധമായി ഒരു പരിപാടികൾ അവർക്കറിയത്തില്ല ഞാൻ തന്നെയെല്ല ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇപ്പം ഈ അയൽക്കൂട്ടം തുടങ്ങിയപ്പം ഞങ്ങൾക്ക് പേടിയില്ല ബാങ്കിൽ പോകാനും പൈസ എടുക്കാനും പോകാനും എല്ലാം എവിടെ പോകണം ഞങ്ങള് ബാഗ് എടുക്കുക പോകുക നല്ല ആക്റ്റീവായി ഇപ്പം എവിടെ പോകാനും നല്ല ഇഷ്ടമാണ് നേരെ മറിച്ച് ഈ അയൽക്കൂട്ടമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കാൻ പോലും അറിയാൻ പാടില്ലായിരുന്നു ബാങ്കിൽ പോയി ലോൺ എടുക്കാനോ പിന്നെ എന്ത് ചെയ്യണം എത്ര ലക്ഷം രൂപ വരേ എടുത്തോണ്ട് വരണം ഒരു മടിയില്ല ബാങ്കില് മാനേജരെ കാണുക ആദ്യം മാനേജരെ കാണും അത് കഴിഞ്ഞ് ഫീൽഡ് ഓഫീസറെ കാണും അത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ എല്ലാം കാണും അവരോക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാം എഴുതി പെറുക്കി അപേക്ഷ ഫോമും ഒക്കെ കൊടുത്ത് ഞങ്ങൾ പോ എല്ലാ എഴുതി റെഡിയാക്കും എന്നിട്ട് ഞങ്ങള് അവിടുന്ന് പൈസയും മേടിച്ച് ഞങ്ങൾ അയൽകൂട്ടത്തിലായിട്ടും അല്ല സ്വന്തം വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് പൈസയൊക്ക വാങ്ങി ലോണൊക്കെ എടുത്ത് വീട്ടിൽ വരും ഇപ്പം ഞങ്ങൾക്ക് ബാങ്കിൽ പോകാനൊരു പ്രശ്നങ്ങളും ഇല്ല പിന്നെ അത് കാരണം ഞങ്ങൾക്കിപ്പം എവിടെ പോയി ആരോടും അയൽവക്കത്ത് പോയി പൈസ മേടിക്കാനും അല്ലെങ്കിൽ കൂട്ടുകാരോട് പൈസ മേടിക്കാനും ഒന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ലിപ്പം ഞങ്ങൾ നല്ല ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നു ഇതൊക്കെയാണെനിക്ക് പറയാനുള്ളത്